തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ആദ്യമായിട്ട് എൻ്റെ സംസ്ഥാനം കേരളസംസ്ഥാനത്തിൽ നിന്ന് പുറത്ത് പോയത് എൻ്റെ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ചെറുപ്പത്തിലാണ് ഊട്ടിയിലോട്ടാണ് പോയത് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ടൂറായിരുന്നു ഊട്ടി അതിനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനാ ഊട്ടിക്ക് പോയത് എന്തുകൊണ്ടും യാത്ര എൻ്റെ ഒരു ഹോബിയു ഒരു ഭാഗമായത് കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ പോയതാണ് ആദ്യമായിട്ട് പോയി എനിക്ക് അതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അതും ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാനൊരു മൂന്നാല് വട്ടം പോയിട്ടുണ്ട് യാത്ര ചെയ്യുന്നത് പോലെ നമ്മുടെ കുറെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും യാത്രയിലൂടെ നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും പുതിയ ഭാഷ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നു അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും എനിക്ക് യാത്ര എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യവാണ് അങ്ങനെ ഞാനാദ്യമായിട്ട് കേരളത്തിന് പുറത്ത് പോയതാണ് ഊട്ടി അതും സ്കൂളിൻ്റെ ടൂറിന് അത് എൻ്റെ ഏഴാം ക്ലാസ്സിലായിരുന്നു പിന്നേ ഒരു പത്ത് പതിനാല് വയസ്സിനിടയിൽ ആയിരുന്നു ഞാൻ പോയത് ഒരു തരത്തിൽ നോക്കിയാൽ അതൊരു ചെറിയ റിസ്ക്കാണ് ആ ഒരു വയസ്സിൽ പുറത്ത് പോവുക എന്നുള്ളത് ഒറ്റക്കായിരുന്നില്ല സ്കൂളിൽ നിന്ന് അദ്ധ്യാപകരും അങ്ങനെ എല്ലാരും തന്നെ ഉണ്ടായിരുന്നു അത് കൊണ്ടാണ് വീട്ടിൽ നിന്ന് വിട്ടതും ഞാ എല്ലാം അതുകൊണ്ട് തന്നെ വളരെ എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും കാണാനും എല്ലാം എനിക്ക് ഇടയായി പിന്നെ ഊട്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ടും നല്ല സ്ഥലവാണ്